ആ കേൾക്കുന്നുണ്ട് അതെ അതെ പറയൂ ആരാണ് ഓക്കെ ഓക്കെ ആ ആ ആ

നിങ്ങൾക്കെതൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്

ആ ഉണ്ടുണ്ട് ആ ആ പറ്റും പറ്റും ഓക്കെ ഗിൽറ്റഡ് സാരീസിനൊക്കെ അയ്യായിരം മൂവായിരത്തിൻറ്റുള്ളിലാണ് ഗിൽറ്റഡ് സാരീസ് വരുക നിങ്ങൾക്കെത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് നമ്മളത് നമ്മുടെ മാനുഫാക്ച്ചറിംഗ് യൂണിറ്റിൽ പോയി പറഞ്ഞ് അതിനനുസരിച്ച് ഒക്കെ മേടിച്ച് വരുന്നതായിരിക്കും ആ അത് ഫുൾ പാക്ക്ഡായിരിക്കും ഏതൊക്കെ വേണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്തായാലും ഫുൾ പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുക ആ ഉണ്ട് ഉണ്ട് ഞങ്ങളത് കാഞ്ചീപുരത്ത് പോയിട്ട് അവിടെ ഒറിജിനലി അവർ ആ മാനുഫാക്ച്ചറിംഗ് യൂണിറ്റ് പോയിട്ട് നമ്മളെന്നെ നെയ്തുണ്ടാക്കുന്ന സാരീസാണ് അത്രയും നല്ലതാണ് ഒരു ഫോൾട്ടും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയായിരിക്കും

ആ ആ വെഡ്ഡിംഗ് സാരീസിനൊക്കെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മാനുഫാക്ച്ചറിംഗ് യൂണിറ്റുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് അത് റെഡിയാക്കി തരും ഇപ്പോൾ ഇരുപതിനായിരമാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് നിങ്ങളുടെ ഇതിനനുസരിച്ചത് റെഡിയാക്കി തരും ആ ആ കൂട്ടി വിൽക്കാം മാക്സിമം പതിനായിരം വരെ നിങ്ങൾക്ക് കൂട്ടി വിൽക്കാം കാരണം നമ്മളത്രയും നല്ല ക്വാളിറ്റീൽത്ത സാധനങ്ങളുപയോഗിച്ചിട്ടാണ് ചെയ്യുക അതെ അതെ വിളിക്കാം സോഫ്റ്റ് സാരീസ് ബാംഗ്ലൂരും ഉണ്ട് നമുക്ക് മാനുഫാക്ച്ചറിംഗ് യൂണിറ്റ് ചെന്നൈലും ഉണ്ട് ഇവിടൊക്കെ നമ്മൾ സ്വയം പോയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് നമ്മുടെ എല്ലാം നമ്മൾ ഒക്കെ നമുക്ക് പാക്കിംങ്ങോക്കെ നമ്മളന്നെ ചെയ്തിട്ട് നമ്മുടെ നിങ്ങൾക്കെത്തിച്ചേരുന്നതാണ്

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ പാൻറ്റുകളും സാരീസും നിങ്ങൾ പറയണ റേറ്റിലായിരിക്കും തരുക അപ്പോൾ പതിനായിരമാണ് നിങ്ങളുദ്ദേശാണെങ്കിൽ അതിൻറ്റുള്ളിൽ വരും ഓക്കെ ആ നല്ല റേറ്റുണ്ട് പിന്നെ പിന്നെ പറഞ്ഞല്ലോ ഒക്കെ കസ്റ്റമൈസ്ഡാണ് നമ്മുടെ നമ്മൾ പറയണതിനനുസരിച്ച് അവർ ചെയ്തുതരും പക്ഷേ ക്വാളിറ്റീലൊരു വിട്ടുവീഴ്ചയില്ല

ആ ആ എനിക്ക് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസൊന്ന് എനിക്ക് അയച്ച് തരണം മെയിൽ ചെയ്തന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ വരാം ആ പറ്റും പറ്റും ഓക്കെ ഓക്കെ ഞങ്ങളുടെ കട മറ്റേ എം ജി റോഡൊക്കെ കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ഉള്ളിലെക്ക് പോകണം നിങ്ങൾ വരുന്ന ടൈമിൽ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ബൈ